നിങ്ങളുടെ പ്രദേശത്ത് ഗതാഗത സൗകര്യം വിദ്യാഭ്യാസത്തെ എങ്ങനെയെല്ലാം പിന്തുണയ്ക്കുന്നു എന്നുവച്ചാല് ഇപ്പോള് വിദ്യാര്ത്ഥികള്ക്ക് അവര്ക്ക് പഠിക്കുന്ന സ്ഥലത്തോട്ട് പോകാനായിട്ടുള്ള ബസുകള് സര്ക്കാര് മുഖേന ഉണ്ട് ഇപ്പോള് പ്രൈവറ്റ് ബസില് പോവ്വാന്നുണ്ടെങ്കില് അവര്ക്ക് എസ് ടി ഉണ്ട് ട്രാന്സ്പോര്ട്ടില് പോവ്വാണെങ്കില് അവര്ക്ക് പാസ് ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങള് ഇപ്പോഴത്തെ സര്ക്കാരെല്ലാ കാര്യത്തിനും ചെയ്തു തരുന്നുണ്ട് പിന്നെ ചില അടുത്തൊക്കെയാണെങ്കില് എല്ലാവരും നടന്നു പോകും പിന്നെ പാവപ്പെട്ട പിള്ളേര്ക്ക് സൈക്കിള് വിതരണമൊക്കെ നടത്തുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങള് ഇപ്പോഴത്തെ ഗതാഗതം പിന്നെ ഇപ്പോഴത്തെ ഗതാഗതത്തെ സംബന്ധിച്ചിടത്ത് കുട്ടികള് ഇന്ന് ചെല്ലേണ്ടതാണെങ്കില് നാളെ ചെല്ലും അത്രയ്ക്കും നല്ല റോഡും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് പ്രശ്നമില്ല ഇപ്പോള് പിന്നെ ലഭ്യമായ സഞ്ചാര മാര്ഗങ്ങളേതെന്ന് ചോദിച്ചാല് സൈക്കിളുണ്ട് കുട്ടികള്ക്ക് സൈക്കിള് കൊടുക്കുന്നുണ്ട് ബസില് കണ്സഷന് ഉണ്ട് എസ് ടി ഉണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ ഗതാഗതത്തിന്